ഹലോ പാസ്പോർട്ട് ഓഫീസല്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പാസ്പോർട്ട് എടുക്കുന്നതു തൊട്ടിട്ട് ഫസ്റ്റ് തൊട്ടിട്ട് ഒന്നു പറഞ്ഞു തരാമോ എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയയില്ല അതു കൊണ്ടാണ് പിന്നെ ആവശ്യമായ രേഖകളൊക്കെ എന്താണ് പിന്നെ എന്തൊക്കെയാണ് യോഗ്യത പിന്നെ എത്ര സമയം പിടിക്കും ഇതു കിട്ടാൻ എല്ലാം ഒന്ന് അറിയേണ്ടതെന്നോ അതിനു വേണ്ടിയിട്ടു വിളിച്ചതാണ് ആദ്യമായിട്ടാണ് പാസ്പോർട്ട് എടുക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ പറഞ്ഞു തരുമെന്നു വിചാരിക്കുന്നു പിന്നെ നമ്മുടെ മെഡിക്കലും കാര്യങ്ങളും ഒക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് അതോ അപേക്ഷിക്കുമ്പം തന്നെ അതൊക്കെ ചെയ്യണോ അതിനെ കുറിച്ച് വിശദമായിട്ടു പറഞ്ഞു തരണം പിന്നെ നമ്മുടെ വേറെന്തെല്ലാം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു പിന്നെ നമ്മളുടെ ആധാറും ഫോൺ നമ്പറും അങ്ങനെയൊക്കെ ലിങ്ക് ആക്കണോ അതിനെക്കുറിച്ചു പറഞ്ഞാൽ നമ്മൾക്കതിനെക്കുറിച്ച് ആദ്യം തന്നെ കാര്യങ്ങൾ ശരിയാക്കാമായിരുന്നു